വിദൂരമായ സ്ഥലത്തേക്കി ദീർഘദൂര ബൈക്ക് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല യുവാക്കളും

സൂക്ഷിക്കാം അത് പോലെ മറ്റ് വേദനയും പ്രയാസങ്ങളും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരു ദീർഘ ദൂര യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്

കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നുള്ളത് ഒരുപാട് നട്സ് ഫ ഫ്രൂട്ട്സ് തുടങ്ങിയ പഴവർഗങ്ങളും അതുപോലെ

പറ്റും എന്നുള്ളത് കൊണ്ട് എന്നാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിശ്രമം കൊടുക്കൽ നമ്മുടെ എന്തായാലും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നമ്മൾ എത്ര എത്ര ഇടവിട്ട് ഇടവിട്ട് നമ്മൾ വണ്ടി നിർത്തണമെന്നുള്ളതും ആ വണ്ടി നിർത്തിയിട്ട് നമ്മൾ